എൻ്റെ പ്രദേശത്ത് പതിവായി കാണപ്പെടുന്ന പക്ഷികൾ കാക്ക കുയിൽ പരുന്ത് മരംകൊത്തി കിളികൾ പ്രാവുകൾ തത്ത മൈനകളൊക്കെയാണ് എനിക്ക് കൂടുതലും പ്രാവുകളെയും കുയിലുകളെയും കാക്കകളെയും നിരീക്ഷിക്കാനിഷ്ടം കാക്കയോടെനിക്ക് പ്രത്യേക ഒരിഷ്ടം തോന്നാറുണ്ട് കാരണം അവ നമ്മുടെ പരിസരത്തു കിടക്കുന്ന ചീത്ത വസ്തുക്കൾ കൊത്തിയെടുത്ത് അവിടം വൃത്തിയാക്കുന്നു അതിൽ നമ്മുടെ പരിസരം വൃത്തിയാവുകയും ചെയ്യും അതിലുപരി കാക്കകൾക്കവരുടെ വിശപ്പകറ്റാനും കഴിയും പിന്നെ എനിക്ക് പ്രാവുകളെ നിരീക്ഷിക്കാനും വളരെ ഇഷ്ടമാണ് എനിക്ക് അതിനെ ഒക്കെ നിരീക്ഷിക്കുമ്പോൾ അതൊക്കെ പറന്നു നടക്കുന്നത് കാണുമ്പോഴും എനിക്കൊരു പ്രത്യേക അനുഭൂതി കിട്ടും പിന്നെ കുയിലുകളെ നിരീക്ഷിക്കാനും കാരണം കുയിലുകളുടെ പാട്ടുകേക്കാൻ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമ്മുടെ മനസിലെ ഒരുപാട് സന്തോഷം ഉണ്ടാകും അതുകൊണ്ടുതന്നെ ഇവയൊക്കെ നിരീക്ഷിക്കാനാണ് എനിക്ക് കൂടുതലും താല്പര്യവും ഇഷ്ടവും ഇതെല്ലാം എൻ്റെ വീടിൻ്റെ പരിസരത്ത് എപ്പോഴും കാണാറുമുണ്ട്